ഇത് വളരെ രസകരമായ ഒരു ചോദ്യം തന്നെയാണ് ഈ ഒരു കാലഘട്ടത്തിൽ ആരാണ് ആ ഒരു ഈ ഈ പറയുന്ന ഫേസ്ബുക്ക് ട്വിറ്റർ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം പോലുള്ള പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കാത്തത് എന്ന് സംശയമുണ്ട് ഒരു ഒരു ജന ഒരു ഒരു തലമുറയ്ക്ക് ശേഷം ഇപ്പോഴുള്ള ഈ തലമുറയിൽ എല്ലാവരും തന്നെ ഇൻ്റർനെറ്റിൻ്റെ വരവോടുകൂടി തന്നെ ഇത്തരം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ വളരെ വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ട് കൂടുതലായും ഇപ്പോഴത്തെ ഈ ഈ പുതിയ തലമുറയെ ഒന്നു മാറ്റി നിർത്തിയാൽ പഴയ തലമുറയിൽ ഒരു സമൂഹത്തിൽപ്പെട്ട ഒരു നാല്പത് വയസ്സിന് താഴെയുള്ള ആളുകളെപ്പറ്റി പറയുമ്പോൾ അവർ ഈ ഈ ഒരു സാഹചര്യത്തിലേക്ക് പുതുതായി എത്തപ്പെടുകയാരുന്നു അവരുടെ സാഹചര്യങ്ങളിൽ നിന്നും പിന്നീട് പതുക്കെ പതുക്കെ പുതുതായി രൂപംകൊണ്ടുവന്ന ഈ ഒരു സാഹചര്യത്തിലേക്ക് പൊരുത്തപ്പെടുകയായിരുന്നു എന്നു വന്ന് പൊരുത്തപ്പെട്ട് വരികയാണ് അവർക്ക് കൂടുതലായും ഉദാഹരണത്തിന് എന്നെ സംബന്ധിച്ചെടുത്തോളം തന്നെ ഞാൻ ഫേസ്ബുക്ക് കൂടുതായി ഉപയോഗിക്കുന്ന എൻ്റെ ഫാമിലി പരമായി യാത്രകൾ എന്തെങ്കിലും ഫാമിലിയിൽ കുട്ടികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവരുടെ ബർത്ത്ഡേ ജന്മദിനങ്ങൾ അല്ലെങ്കിൽ സ്കൂളിലെ സ്കൂളാഘോഷങ്ങൾ അവരുടെ എന്തെങ്കിലും പ്രത്യേക കലാപരിപാടികൾ ഇങ്ങനത്തെ സാഹചര്യങ്ങൾ അതൊക്കെയാണ് ഞാൻ കൂടുതലായി പോസ്റ്റ് ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാനും ഈ അങ്ങനെ അത്തരമുള്ള കാര്യങ്ങൾ തന്നെയാണ് കൂടുതലായി കാണാൻ ശ്രമിച്ചുകൊണ്ടുതന്നെയിരിക്കുന്നത് എൻ്റെ സൗഹൃദങ്ങൾ എൻ്റെ സൗഹൃദങ്ങളുടെ ഇപ്പോൾ എൻ്റെ അടുത്തില്ലാത്തതുമായ ആളുകൾ അവരുടെ ജോലി സ്ഥലങ്ങളിൽ അവരുടെ ജോലി സ്ഥലത്തൊ ജോലി സ്ഥലം എന്നു ഉദ്ദേശിച്ചിരിക്കുമ്പോൾ തന്നെ അവർ മറ്റൊരു രാജ്യത്ത് ആയിരിക്കാം കാലങ്ങളായി അവർ കാണാൻ യാതൊരു സാഹചര്യങ്ങളും ഇല്ലായിരുന്നു പക്ഷെ ഇത്തരം സോഷ്യൽ മീഡിയകളിലൂടെ അവർ പോസ്റ്റ് ചെയ്യുന്ന ചിത്രങ്ങൾ അവരുടെ എന്തെങ്കിലും സംഭവവികാസങ്ങൾ അവരുടെ കൂട്ടത്തിൽ സംഭവിച്ചു കഴിഞ്ഞാൽ അത് ഉടൻതന്നെ അവരതിനെക്കുറിച്ചുള്ള ഒരു പോസ്റ്റ് ഇടുകയും അപ്പോൾ നമ്മൾ ഉടൻതന്നെ നമ്മൾ അതറിയുകയും നമ്മളതിനോട് പ്രതികരിക്കയും നമ്മളത് അതിനുള്ള ആശംസകൾ അറിയിക്കുകയോ അല്ലെങ്കിൽ നമ്മുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയോ ചെയ്യാറുണ്ട് അത് അവർക്കും നമുക്കും ഒരു സന്തോഷം തരുന്ന ഒരു പ്രവർത്തികൾ തന്നെയാണ് സമയം ചിലവഴിക്കുന്നതിനെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഒരു എന്താണ് പറയുക എന്നു പറഞ്ഞാൽ കൂടുതലായും നമ്മുടെ ഫ്രീ ഒഴിവ് സമയത്തിൻ്റെ മുക്കാൽ പങ്കും ഇങ്ങനത്തെ സോഷ്യൽ മീഡിയകൾ തന്നെയാണ് അപഹരിക്കുന്നത് പണ്ട് വായനയ്ക്ക് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു സമയം കൂടി ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ നമ്മളിൽ നിന്ന് കവർന്നെടുത്തുകൊണ്ടിരിക്കുകയാണ് എനിക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളെന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയയിൽ അതായത് ഫേസ്ബുക്ക് പോലുള്ള കാര്യങ്ങളിൽ വരുന്ന ചില വാർത്തകളാണ് മറ്റുള്ളവരെ അവകീർത്തിപ്പെടുത്താൻ മാത്രം ഉദ്ദേശിച്ചുകൊണ്ടുള്ള ചില വാർത്തകൾ മറ്റുള്ളവരെ മുൻനിർത്തിക്കൊണ്ട് മുൻവിധികളോടുകൂടി മുൻവിധികളോടുള്ള ചിന്തകളോടു കൂടി തന്നെ ആളുകളെ ആളുകളെ കരിവാരി തേക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ തന്നെയാണ് ഇത്തരം വാർത്തകൾ അവർ പ്രതികരിക്കുന്നത് അവർ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നത് ഇത്തരം വാർത്തകൾ മൂലം അത് അതാരെക്കുറിച്ച് പ്രചരിക്കുന്നു അവർക്കുണ്ടാകുന്ന മാനസികവും സാമൂഹികമായ പ്രശ്നങ്ങളെക്കുറിച്ച് ഇത്തരം ആളുകൾ ചിന്ദിക്കാറില്ല നേര് കാണാതെ പ്രതി നേരിൽ കാണാതെ നമുക്ക് ഇതിൽ പോസ്റ്റ് ചെയ്യാമെന്നുള്ളതുകൊണ്ട് തന്നെ ആളുകൾക്ക് എന്തും ചെയ്യാമെന്നുള്ള ഒരു സാഹചര്യത്തിലേക്ക് ഈ അവസ്ഥ മാറിക്കൊണ്ടിരിക്കുകയാണ് ആളുകളുടെ ഈ ഒരു അവസ്ഥയ്ക്ക് വ്യക്തമായ ഒരു അപബോധം അപബോധം ഉണ്ടാക്കിയെടുക്കണം ഉണ്ടാക്കിയെടുക്കണം മാറുന്ന തലമുറയിൽ അതിന്റേതായ പുതിയ തലമുറയിൽ നിന്ന് വരുന്ന ഇപ്പോൾ ഈ തലമുറയിലുള്ള കുഞ്ഞുങ്ങൾ ഇതിനോട് പോസിറ്റീവായ തനത് രീതിയിൽ തന്നെയാണ് പ്രതികരിക്കുന്നതാണ് എന്നെനിക്ക് തോന്നുന്നത് എനിക്ക് തോന്നുന്നത് കൂടുതലായും ഈ കാലഘട്ടത്തിൽ നിന്ന് ഇരുപതുകളിലും അമ്പതിലുമുള്ള ആളുകളാണ് ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ അതിൽ നടത്തുന്നത് അവർക്ക് നടക്കാതെ പോയ അല്ലെങ്കിൽ ഇപ്പോഴത്തെ തലമുറയിലെ ആളുകൾ ചെയ്യുന്നത് ചെയ്യാൻ പറ്റാതെ പോയതിലുള്ള സങ്കടങ്ങളോ അല്ലെങ്കിൽ അതുമൂലം ഉണ്ടാകുന്ന കുറ്റബോധം എന്നു പറയുന്നതൊക്കെ ഇല്ലായെങ്കിൽ തന്നെ അങ്ങനെ ഒരവസ്ഥയിലേക്കാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ ആളുകളെ പ്രേരിപ്പിക്കുന്നത് ഇത്തരം കാര്യങ്ങൾ പ്രേരിപ്പിക്കുന്നത് ഇതിൽ തന്നെ ഇത് വളരെ ഉപകാരപ്രദമായ ഇത്തരം വസ്തുതകളുടെ ഉത്തരവാദിത്ത്വപൂർണ്ണമായ ഉപയോഗങ്ങൾ ഉണ്ടാകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്